ഇപ്പം നമ്മുടെ കൂടുതൽ നമുക്ക് നോർമൽ ആർട്സിനെക്കാളും കൂടുതൽ ഇപ്പം ഡിജിറ്റൽ ആർട്ട്സാന്ന് തോന്നുന്നു കാരണം കമ്പ്യൂട്ടറിലായിക്കോട്ടെ അതുപോലെ ഉള്ള സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വന്നോണ്ടിരിക്കുന്ന ഡിജിറ്റലായിട്ടുള്ള ആർട്സാണ് കാരണം എല്ലാവരിലേക്കും കുറച്ചും കൂടെ കൺവിൻസാണ് ഡിജിറ്റൽ ആർട്സ് ഇപ്പം നമുക്ക് മറ്റ് ഒരു ക്യാൻവാസും അതുപോലെ തന്നെ പെയിൻറ്റും കാര്യങ്ങൾ ഒക്കെ വേണ്ട സമയത്ത് ഒരു മൗസോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഡിജിറ്റൽ ലോഗോ ഉണ്ടെങ്കിൽ നമുക്ക് ഡിജലാ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഓൾമോസ്റ്റെല്ലാവരും എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ ആർട്ട്സ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ് കൂടുതൽ കാരണം മറ്റേ കുറച്ച് കൂടി എക്സ്പെൻസീവാണ് അതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യാനും ക്ഷമയും കാര്യങ്ങളും അതുപോലെ ഇപ്പം ഒരു പെയിൻറ്റ് നമ്മൾ ഉപയോഗിക്കാണേ അത് ഉണങ്ങുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഉള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഡിജിറ്റലായിട്ട് ചെയ്യുക ആണെങ്കിൽ കുറച്ചൂടെ കൺവിൻസ് കൺവീൻസിങ്ങായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാവരിലേക്ക് എത്തിക്കാൻ എളുപ്പമായിരിക്കും കാരണം അതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നേം കാര്യങ്ങളും എല്ലാം വരുന്നത് കൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ മനുഷ്യ നിർമ്മിതികൾ കുറച്ചും കൂടെ എന്താ പറയാ എളുപ്പമാക്കാൻ വേണ്ടീട്ടും അതുപോലെത്തുള്ള കലാസൃഷ്ടികളിലെ വളർത്തി കൊണ്ട് വരുന്നതിനും ഇത് നന്നായിട്ട് ഇതാക്കുന്നുണ്ട് ഇപ്പം ഡിജിറ്റൽ ലോകത്തേക്ക് ഓൾമോസ്റ്റെല്ലാവരും മാറി തുടങ്ങിയത് കൊണ്ട് തന്നെ ഇത് ഡിജിറ്റലായത് കൊണ്ട് മനുഷ്യർക്ക് നന്നായിട്ട് കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടീട്ട് സഹായിച്ചിട്ടുണ്ട്